വയനാട് ജില്ല എന്നുപറയുന്നത് ഒരു കർഷകസമ്പന്നമായ ഒരു ജില്ലയാണ് അതുകൊണ്ടുതന്നെ വയനാട്ടിൽ പലതരം കൃഷി വിളകളും കർഷകർ ചെയ്യുന്നുണ്ട് അതിൽത്തന്നെ പ്രധാനപ്പെട്ടതാണ് നെല്ല് വാഴ ഇഞ്ചി ചേന കപ്പ പച്ചക്കറികളായ പയർ മുളക് മറ്റു പല പച്ചക്കറികളും ഈ കർഷകർ പച്ച ഈ പച്ചക്കറികളും മറ്റു വിളകളും ഒക്കെ ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് വിപണിയിൽ നൽകുകയും അതിൽ നിന്നുള്ള ലാഭം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് കൂടുതലായും വയനാട്ടിൽ തന്നെയുള്ള മാർക്കറ്റുകളിലാണ് ഇതെല്ലാം വിൽപ്പന നടത്തുന്നത് അതുപോലെതന്നെ ഇവിടെ നിന്ന് മറ്റ് ജില്ലകളിലേക്കും കയറ്റുമതി ചെയ്യുന്നും കൂടി ഉണ്ട്